നൃത്തം ചെയ്യുമ്പോൾ ശരീരത്തിന് ആവശ്യമായ വ്യായാമം ലഭിക്കുകയും ടെൻഷൻ ഇല്ലാതിരിക്കുകയും മനസ്സ് സന്തോഷമായി ഇരിക്കുകയും ചെയ്യും നൃത്തം ചെയ്യുമ്പോൾ കേൾക്കുന്ന മ്യൂസിക്കും അതിനനുസരിച്ചുള്ള നർത്തകരുടെ ചലനങ്ങളും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് മനസ്സിന് ആനന്ദദായകമാണ് മറ്റെല്ലാ ചിന്തകളും മറന്ന് അതിൽ ലയിച്ചിരിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിന് അതിയായ സന്തോഷം തോന്നും